ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അനുഭവിക്കുന്നത് എന്തായാലും കുടിവെള്ളക്ഷാമമുണ്ട് എവിടെയൊക്കെയോ എത്രയോ ആൾക്കാർ നല്ല ശുദ്ധജലം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടു നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ആ ഒരു കുഴപ്പം വരുന്നില്ല പക്ഷേ എങ്കിൽ ടൗൺ ഏരിയയിൽ ഒക്കെ എല്ലാവരും നന്നായിട്ട് നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ തന്നെ നമ്മുടെ വെള്ളം നമ്മുടെ നാട്ടിലെ വെള്ളത്തിൻ്റെ രുചിക്ക് വേണ്ടിട്ട് കൊതിയോടെ നിന്നിട്ടുണ്ട് അന്യസംസ്ഥാനങ്ങളൊക്കെ പോകുമ്പോൾ കിണർ വെള്ളമില്ല പൈപ്പ് വെള്ളമാണ് പിന്നെ എന്താ പറയേണ്ടത് ഇലക്ട്രിസിറ്റിൻ്റെ ഉപയോഗം അതും കൂടുതലാണ് അപ്പോൾ സർക്കാർ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ എല്ലാം പറയുന്നത് പണ്ടത്തെ പോലെയല്ല നല്ല ചൂട് കൂടിക്കൂടി കൂടി വരുകയാണ് വിദേശരാജ്യങ്ങൾ പോലെ ഭയങ്കരമായിട്ട് ചൂട് കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് അപ്പം എല്ലാവരും ഫാനും എ സിയുടെയൊക്കെ ഉപഭോഗം ഭോഗം കൂടിയിട്ടാണുള്ളത് അപ്പം അതിനനുസരിച്ച് ലഭ്യമാക്കാൻ നമ്മുടെ സർക്കാറിൻ്റെ കയ്യിൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത് അപ്പോൾ അത് അവർ പവർ കട്ടായിട്ടും അ അങ്ങനെ കുറച്ചു കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബൾബുകൾ മാറ്റുക വോൾട്ട് മ കുറച്ചു കൊണ്ട് ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും അങ്ങനെ ചെയ്യണം പിന്നെ തടാകങ്ങൾ ഒക്കെ വറ്റി വറ്റി വളരാണല്ലോ വരളുകയാണ് അപ്പോൾ ഈ കാലാവസ്ഥേന്റെ പ്രശ്നം കൊണ്ടാണ് മഴ പണ്ടൊക്കെ മഴയ്ക്ക് മഴ നന്നായിട്ട് ആറുമാസം മിത ശീതോഷ്ണ കാലാവസ്ഥയെന്നൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം എന്താ പറയേണ്ടത് മഴയൊക്കെ വളരെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ മരങ്ങളൊക്കെ മുറിച്ചു കളയുന്നുണ്ട് നമുക്കിപ്പോൾ മഴയൊന്നും ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് നമുക്ക് കറണ്ട് ഉല്പാദിപ്പിക്കാൻ അപ്പോൾ അതിന് വെള്ളം വേണ്ടേ അപ്പോൾ മഴ പെയ്യാത്തിടത്തോളം കാലം നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറയും അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് മരങ്ങളൊക്കെ നട്ട് വളർത്തി നമുക്ക് മഴയൊക്കെ പെയ്ത അങ്ങനെ വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പണ്ട് നമ്മൾ ഉണ്ടായിരുന്ന ഒരു ഭൂമിയെ ഭൂമിയിലേയ്ക്ക് നമുക്ക് തിരിച്ച് ഒരു പോക്ക് ഉണ്ടാവുകയുള്ളൂ ആ കാലാവസ്ഥയും ഒക്കെ നമ്മൾ തിരിച്ചുകൊണ്ട് വരേണ്ടിയിരിക്കുന്നു അപ്പം സർക്കാറും ഒരുപാട് സംരംഭങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ മഴാ എന്താ പറയാ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും കുട്ടികൾക്ക് സ്കൂളിൽന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി വരുന്ന തലമുറ എങ്കിലും അങ്ങനെയൊക്കെ ചെയ്താലേ അടുത്ത വരും വരും തലമുറകൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളു